വിശ്വസിച്ചു കഴിക്കാവുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് വളരെ വെല്ലുവിളി നേടിരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പൊതുവെ കാർഷിക വിളകൾക്ക് കൂടുതൽ ഫലം ലഭിക്കുന്നതിനും ഇല്ലെങ്കിൽ കൂടുതൽ ഫ്രൂട്ട്സ് ഫലങ്ങൾ കേടു കൂടാതെ സംരക്ഷിക്കുന്നതിനും രാസവസ്തുക്കളും വിഷവും അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ നമ്മൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ക്യാൻസർ മൂലം പോലുള്ള കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ആരോഗ്യ മേഖലയെ വെല്ലുവിളി നേരിടുന്നതിനും ഇടയാകുന്നുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ടും കാർഷിക വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ കേട് കൂടാതെ സംരക്ഷിക്കുന്നതിന് കുൽസിത ശ്രമങ്ങൾ ധാർമ്മിക മാർഗ്ഗങ്ങളിലൂടെ അവയെ കേടു കൂടാതെ സംരക്ഷിക്കുന്നതിന് നമുക്ക് ഫ്രഷ് പദാർത്ഥങ്ങളുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ വരുന്നു ആയത് മൂലം കാർഷിക ഉൽപ്പനങ്ങളുടെയും ഫലങ്ങളുടെയും ഫ്രൂട്ട്സ് മുതലായ ഫലമൂലാദികളുടെ ക്വാളിറ്റി സൂക്ഷിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ആയതിന് വേണ്ടി പരിസ്ഥിതി സൗഹൃദമായ ജൈവവളങ്ങളും പരിസ്ഥിതി സൗഹൃദ ഫെർട്ടിലൈസുകളും ഉപയോഗിച്ചു കൊണ്ട് കാർഷിക ഫലങ്ങൾ സംരക്ഷിക്കുന്നതിനും അവയുടെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നതിനും സാധിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യമേഖലയെ സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളു അല്ലാത്ത പക്ഷം അസുഖങ്ങൾ കൂടുതലായി ഉണ്ടാകുകയും നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നത് ഒരു സാമൂഹ്യ പ്രശ്നമായി വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും ആയത് ഒഴിവാക്കുന്നതിന് വേണ്ടി കാർഷിക വ്യാവസായിക മേഖലയിൽ പരിസ്ഥിതി സൗഹൃദമായും ജൈവ സംവിധാനങ്ങൾ ഉപയോഗിച്ചും കർഷിയേയും ഭക്ഷ്യ വസ്തുക്കളെയും സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും ഉള്ള സാഹചര്യം കൂടുതലും ഗവൺമെന്റ് തലത്തിൽ പ്രോത്സാഹനം നൽകി അവ ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആരോഗ്യമേഖലയും സാമൂഹിക സാംസ്കാരിക ജീവിതത്തെയും സുരക്ഷിതമായി കൊണ്ട് പോകുന്നതിനും കൂടുതൽ സുരക്ഷിതമായി പ്രകൃതിയെയും ജീവനെയും സംരക്ഷിക്കുന്നതിനും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളു അതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും പൊതുമേഖലയിലും സ്വകാര്യമേഖലയിലും വ്യക്തിപരമായ മേഖലയിലും സാമൂഹികമായ മേഖലയിലും സംഘടനാപരമായ മേഖലയിലും ചെയ്തുകൊണ്ട് പരിസ്ഥിതിയെയും അതുപോലെ വ്യക്തി ശുചിത്വത്തെയും സംരക്ഷിച്ചു കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷ്യവസ്തുക്കൾ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ലഭ്യമാവുന്ന സാഹചര്യം നാം സംജാതമാക്കണം